ഹലോ ഹലോ മിസ്സേ കേൾക്കാന് പറ്റുന്നുണ്ടോ ആ മിസ്സേ ഞാന് അനുപ്രിയയാണ് മിസ്സിന്റെ സ്റ്റുഡൻറ്റാണ് ഞാനൊരു ഡൗട്ട് ചോദിക്കാന് വിളിച്ചതാ മിസ്സേ ഞാനൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ടോപ്പിക്കെന്ന് പറയുമ്പം പ്ലേസ് നെയിം ഹിസ്ട്രിയാ അപ്പം മിസ്സിനെന്തെങ്കിലും സജഷന്സ് അതിനെപ്പറ്റി പറയാന് പറ്റുമോ ആ അപ്പോൾ ഞങ്ങൾ ആ മിസ്സിനറിയാമല്ലോ നമ്മളിപ്പം തേഡ് ഇയറാ അപ്പോൾ ഞങ്ങൾക്കൊരു പ്രൊജക്ട് ചെയ്യാനുണ്ട് അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ആരുംതന്നെ ചെയ്യാത്ത ഒരു റെയര് ടോപ്പിക്കല്ലേ അപ്പോൾ അതിനെ കുറിച്ച് പഠിച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടെടുത്തതാ അപ്പം മിസ്സ് എന്താ പറയുന്നത് ആ ഓക്കെ മിസ്സ് പക്ഷെ ഇതുണ്ടല്ലോ ഇതിന് കുറേ സോഴ്സ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് ഓറെല്ലായിട്ടക്കെ അല്ലേ ട്രാന്സ്മിറ്റ് ചെയ്യുന്നത് അപ്പം അത് സബ്ജക്റ്റീവായിട്ട് പോവാന് സാധ്യത ഉണ്ടോ

ആ അതെ അതെ ആ അപ്പോൾ ഞങ്ങളുടെ ഗൈഡും ഇങ്ങനെ തന്നെയാ പറഞ്ഞത് പക്ഷേ എന്നാലും എനിക്കൊരു ഡൗട്ട് വന്നു അതാ ഞാന് മിസ്സിനെ കോണ്ഡാക്റ്റ് ചെയ്യാന് ഉം ഞാനിപ്പം ഒരു ആറ് പഞ്ചായത്തിലെ വാര്ഡ്കളുടെ സ്ഥലനാമത്തെ കുറിച്ച് പഠിക്കാനായിട്ടാ ആ അതൊരു നല്ല പാർട്ടാ അപ്പം നമുക്കിച്ചിരികൂടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ ലഭിക്കുന്നല്ലോ അതുകൊണ്ടാ ഞാനങ്ങനെ മിസ്സിന് ഇനി എന്തിനെങ്കിലും മിസ്സിനെന്തെങ്കിലും ബുക്കൊക്കെ സജസ്റ്റ് ചെയ്യാന് പറ്റുമോ എനിക്ക് വേണ്ടിയിട്ട് ആ ആ പിന്നെ നമ്മളിതെങ്ങനെയാ മിസ്സേ ഇത് ഡിവൈഡ് ചെയ്യേണ്ടത് സ്ഥലം ഇപ്പം പല തരത്തിലാണല്ലോ വരുന്നത് അപ്പം അതെങ്ങനെ നമ്മൾ ചെയ്യും അനുപ്രിയ അനുപ്രിയ അനുപ്രിയ അനുപ്രിയ ആ അനുപ്രിയ

ആ ആ മിസ്സ് ഇനി ഈ ചാപ്റ്ററില് പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളെത്ര ചാപ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യണം മൂന്നെണ്ണമാ എന്നോട് പറഞ്ഞത് അപ്പം അത് മതിയാവുമോ

ആ മിസ്സേ ഹലോ മിസ്സ് പിന്നെ കോളേജ് വിടാം അപ്പോൾ ഞാനിനി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാവേ